പലപ്പോഴും എഴുതുമ്പോൾ നമ്മൾ ഒരു മനസ്സിലൊരു ഐഡിയ കാണും എന്തെഴുതണം എന്തിനെക്കുറിച്ചെഴുതണം എന്നുള്ളൊരു പെട്ടെന്നൊരു മനസ്സിലൊരു ആശയം വന്നു കഴിഞ്ഞാൽ അതൊരു റഫ് പേപ്പറിലോട്ടു നമ്മളത് എഴുതിവെക്കുന്നു ആശയങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി പെട്ടെന്നൊരു കുറിച്ചിടാറുണ്ട് പിന്നീട് സമയം കിട്ടുന്നതിനനുസരിച്ച് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ എഴുതുമ്പോഴേക്കും ആശയങ്ങളെല്ലാം ഒന്നു ക്രോഡീകരിച്ച് എല്ലാം നമ്മുടെ മനസ്സിൽ വന്ന ഒരു ഒരാശയങ്ങൾ വെച്ച് ആദ്യമെഴുതിനോക്കും അപ്പോൾ ഡ്രാഫ്റ്റ് ചിലപ്പോൾ ഒരെഴുത്ത് കഴിയുമ്പോഴേക്കും ഒരൂ അ അഞ്ചോ ആറോ അല്ലെങ്കിൽ ഒരു പത്തോ തവണയൊക്കെ മാറ്റി മാറ്റി ചിലപ്പം നമ്മളെഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം കൊണ്ടെല്ലാം ശരിയായിട്ടുണ്ട് ചില കാര്യങ്ങൾ നമ്മളെഴുതിക്കഴിയുമ്പോഴേക്കും ഇതിങ്ങനെയല്ലായിരുന്നു കുറച്ചും കൂടി അതിനൊരു മാറ്റം വന്നിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാറ്റി പലതവണ മാറ്റി എഴുതി എഴുതാറുണ്ട് പിന്നേ അതു പോലെ തന്നെ നമ്മൾ എഴുതുന്നതിനു മുമ്പ് നമ്മളെപ്പോഴും എല്ലാവരുടെയും നമ്മളെഴുതുന്നുണ്ട് അതുകൊണ്ട് നമ്മളുടെ മാത്രം ശരിയെന്നല്ല എല്ലാവരുടെയും നമ്മൾ വായിക്കാൻ സാധിക്കുന്നിടത്തോളം ബുക്കുകളും ലേഖനങ്ങളും ഒക്കെ വായിച്ചു നോക്കുക പിന്നെ അതു പോലെ തന്നെ പുതിയ പുതിയ വാക്കുകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മനസ്സിലാക്കുവാൻ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക അതൊക്കെ പലപ്പോഴും നമ്മുടെ എഴുത്തിലും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് പലരുടെയും എഴുത്തുകൾ നമ്മൾ വായിച്ചു കഴിയുമ്പോഴേക്കും ഇതു നമ്മുടെ എഴുത്ത് എഴുതുമ്പോഴേക്കും കുറച്ചും കൂടി നമുക്ക് മനോഹരമാക്കാൻ സാധിക്കാറുണ്ട് അപ്പോൾ വായന എപ്പോഴും ഒരു വലിയൊരു ഘടകം തന്നെയാണ് വായനയിൽക്കൂടി നമുക്ക് പുതിയ പുതിയ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട് അതുപോലെതന്നെ എഴുതിക്കഴിയുമ്പോഴേക്ക് നമ്മൾ ആരെയെങ്കിലും അതായത് നമ്മളുടെ അദ്ധ്യാപകരെയോ ഗുരുക്കന്മാരാരെങ്കിലുമുണ്ടെങ്കിൽ അവരെയൊക്കെയൊന്നു കാണിച്ച് നമ്മുടെ എഴുത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എഴുതിയിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഈ നമ്മളെഴുതുന്നത് വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് അവരുടേ കൊടുത്തിട്ട് അവരോട് എന്തെങ്കിലും തെറ്റുകളുണ്ടോ കുറച്ചും കൂടി ഭംഗിയാക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കാറുണ്ട് അങ്ങനെ ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കാറുണ്ട് അവർ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അതനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാറുണ്ട് അപ്പോൾ ഫൈനൽ എഡിറ്റിങ്ങെന്നു പറഞ്ഞാൽ അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളുണ്ടെന്നു തോന്നിക്കഴിഞ്ഞാൽ അതു മാറ്റി അത് പുതിയതായിട്ട് നമ്മളെഴുതി വെക്കാറുണ്ട് അപ്പം അങ്ങ്യ കാര്യങ്ങളും ഉപദേശങ്ങളും പലപ്പോഴും സ്വീകരിക്കാറുണ്ട് ഗുരുക്കന്മാരിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ഉപദേശങ്ങൾ സ്വീകരിക്കാറുണ്ട്